മലയാള ഭാഷയിലെനിക്ക് വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പദ്യങ്ങളൊക്കെ കാണാപാഠം പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒറ്റ കുട്ടികളും പദ്യം കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് ചെറുപ്പത്തിൽ പഠിച്ച ഒരു പദ്യം പോലും ഇപ്പോഴും ആ കുട്ടികൾക്ക് ഓർമ്മ വരുന്നില്ല ഓർമ്മ നിൽക്കുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കാലക്രമേണ മലയാള ഭാഷ കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാരണം പല സ്കൂളും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയതുകൊണ്ട് തന്നെ മലയാളം കമ്പൽസറിയില്ലാത്ത ചില ഇതും വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് മലയാളത്തിൽ ഭയങ്കര കുറവാണ് എനിക്ക് വരുന്നത്